എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ ഒരു ഇരുട്ടായ ഒരു വഴിയിൽ ഒരു പട്ടിക്കുട്ടി ലൈറ്റിന് മറവിൽ നിൽക്കുന്നതാണ് അത് വളരെ മനസുഖം തരുന്ന ഒരു ചിത്രമായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും രാത്രി ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ ടൗണിൽ ഇറങ്ങി നടക്കുകയായിരുന്നു നടക്കുകയായിരുന്നപ്പോൾ ഒരു ചെറിയ ഒരു പട്ടിക്കുട്ടി

സാധനം കടിച്ചു പട്ടി കടിച്ച് പറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെന്ന് അതിൻ്റെ നിഴലും അതിനെയും കാണിച്ചു കൊണ്ട് ഒരു ചെറിയ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തിന് കാണിച്ച് കൊടുത്തു പിന്നെ അത് ഞാൻ ഒരു നല്ലൊരു ക്യാമറയിൽ ക്ലിക്കാക്കി ഞാൻ ഇന്നേവരെ എടുത്തതിൽ ഏറ്റവും അടിപൊളിയായ ചിത്രം അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ

കഥയോ ആ ചിത്രമോ ആ പട്ടിയെയോ ഒരിക്കലും മറക്കുകയില്ല വളരെ അടിപൊളി ചിത്രമായിരുന്നു